സുസുക്കിയിൻ്റെ ഷോറൂം അല്ലേ ആ എനിക്കൊരു കാർ വേണമായിരുന്നു സബ്സ്റ്റാൻസ് സബ്സ്റ്റാൻസ് അപ്പോൾ ലേറ്റസ്റ്റ് വൺ മതി ആ ഓക്കെ ആ പെർഫോമൻസ് പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ് വണ്ടിയിൻ്റെ

ആ ആ

ആ അതിലെ സ്വിഫ്റ്റ് ആണെങ്കിലോ സ്വിഫ്റ്റ് ആണെങ്കിലോ

ആ ഓക്കെ

ഇപ്പോൾ ഏതൊക്കെ കാർ കസ്റ്റമറിന് കിട്ടും ഏതെല്ലാം ഏതെല്ലാം കളർ ഉണ്ട് എന്ന്

ആ ഓക്കെ ആ അപ്പം അപ്പോൾ ലോൺ ഉണ്ടോ വണ്ടിക്ക്

ആ ഓക്കെ അപ്പോൾ ഈ ഷോറൂം എവിടെയായിട്ടാണ് വരുന്നത്

ആ അവിടെ ഒന്ന് കോണ്ടാക്ട് പറഞ്ഞാൽ മതിയോ ഇങ്ങനെ അല്ല ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പോരെ ആ ഓക്കെ